സ്കൂളുകളിലെ തിരുവാതിര ഗ്രൂപ്പ് ഡാൻസ് സംഘ നൃത്തം സിംഗിൾ ഡാൻസ് നാടോടി നൃത്തം തിരുവാതിര മാർഗംകളി എന്നീ കലകളിലെല്ലാം ഞാൻ അഭ്യസിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണെങ്കിൽ വളരെ കാലത്തെ കഠിന പരിശ്രമത്തിനുള്ളിലാണ് നമ്മൾ ആ ഒരു നൃത്ത പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ഒരുപാട് നാളത്തെ പ്രാക്ടീസും കഠിനപ്രയത്നവുമാണ് ഓരോ നൃത്ത ചുവടുകളിലും പറയാനുള്ളത് നൃത്തം പഠിക്കുക എന്നത് വളരെയധികം കഴിവും മനസ്സും ഉള്ള ഒരു വ്യക്തിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് നൃത്തം പഠിച്ചെടുക്കുക എന്നത് ഒരു വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ നിയന്ത്രിക്കാനും മനസ്സിൻ്റെ മനസ്സ് ശാന്തം ആകാനും സാധിക്കുന്ന ഒന്നാണ് നൃത്തം സ്കൂളുകളിലെ പരിപാടുകളിൽ നിന്നും വളരെയധികം സമ്മാനങ്ങളും നൃത്തം ഇതിന് വാങ്ങിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇത് വളരെയധികം അനുഭവേദ്യമാകുന്ന ഒന്നാണ്